സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയോധന കലകളിൽ പല പരിശീലകരുമായിട്ട് ഞാൻ എനിക്കടുത്ത സൗഹൃദം നിലനിൽക്കുന്നുണ്ട് പക്ഷെ എൻ്റെയൊരു താല്പര്യം എന്നു പറയുന്നത് ആയോധന കലകളിലല്ല നൃത്തം അഭ്യസിക്കുക സംഗീതം അഭ്യസിക്കുക എഴുതുക വായിക്കുക അതുപോലുള്ള കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്നു പറയുന്നത് പരിശീലനം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് അതായത് ആയോധന കലകളിൽ പരിശീലനങ്ങൽ നടത്താനുള്ള അവസരങ്ങളൊക്കെത്തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ മാനസികമായിട്ട് എനിക്ക് താൽപര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുൻകൈ എടുത്തില്ല എന്നു പറയുന്നതായിരിക്കും ശരി എനിക്ക് എന്നും താൽപര്യം മോഹിനിയാട്ടത്തോടായിരുന്നു എഴുത്തിനോടായിരുന്നു ചെറുതായി വരയ്ക്കുന്ന ഒരു വ്യക്തികൂടിയാണ് ഞാൻ അതിനോടായിരുന്നു അതുകൊണ്ടൊക്കെത്തന്നെ ഞാൻ അതിലേക്ക് ആണ് ഞാനെൻ്റെ മനസ്സ് സമർപ്പിച്ചിട്ടുള്ളത് മോഹിനിയാട്ടം പഠിക്കാനും പരിശീലിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ പരിശീലിച്ചിട്ടും ഉണ്ട് ധാരാളം പരിപാടികൾ ഞാൻ നടത്തിയിട്ടും ഉണ്ട് ഇന്നും നടത്തുന്നും ഉണ്ട് പിന്നെ വരയ്ക്കുന്നതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂറൽ പെയിൻ്റിങ്ങിലേക്ക് എനിക്ക് പരിശീലനം കുറച്ച് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിവരും എൻ്റെ മേഖല തീർച്ചയായിട്ടും ഒരു ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ ഞാൻ സിവിൽ എഞ്ചിനിയറിംഗ് മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സമയപരിധിക്കനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള പരിശീലനങ്ങളും ഞാൻ ഏറ്റെടുക്കാറുണ്ട് അല്ലെങ്കിൽ പരിശീലനത്തിന് പാത്രമാകാറുണ്ട് എന്നു പറയേണ്ടി വരും കലാപരമായ എല്ലാത്തിനോടും താല്പര്യമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ആയോധനകലകളിൽ മാത്രം എനിക്കധികം താല്പര്യം തോന്നിയിട്ടില്ല അതുകൊണ്ട് പരിശീലനം എന്ന നിലയ്ക്ക് ഞാൻ പോയിട്ടില്ല പരിശീലങ്ങൾ ഒരുപാട് കാണാനും അതിൻ്റെ കണ്ടിരിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചുവെന്നും ഉള്ളത് എനിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നൃത്തം അഭ്യസിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിൽ എൻ്റേതായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടുമാത്രം ഞാൻ പരിശീലനത്തിന് നിന്നിട്ടില്ല എന്നുള്ളത് മാത്രം ഇനിയുള്ള ഇനിയും ഉള്ള കാലത്ത് അവസരങ്ങൾ ലഭിച്ചാൽപ്പോലും ചിലപ്പോൾ ഞാൻ പങ്കെടുക്കണമെന്ന് പങ്കെടുക്കും എന്നു പറയാൻ എനിക്ക് സാധിച്ചെന്നു വരില്ല എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് മാനസികമായിട്ടുള്ള താല്പര്യം എന്നു പറയുന്നത് സൗമ്യമായിട്ടുള്ള മോഹിനിയാട്ടം പോലുള്ള കലകളിലാണ് കഥകളിപോലുള്ള കലകളിലാണ് വരയ്ക്കുക എഴുതുക ഇതൊക്കെത്തന്നെ എനിക്ക് പ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ലഭിക്കുന്ന എല്ലാ പരിശീലനങ്ങളും ഞാൻ പങ്കെടുക്കും എന്ന് ഉള്ളതാണ് എൻ്റെ ഒരു തീരുമാനം എന്നു പറയുന്നത് അതുകൊണ്ടുതന്നെ ആയോധനകലകളുടെ പരിശീലനമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല